കാലാവസ്ഥ വ്യതിയാനങ്ങളായ വെള്ളപ്പൊക്കം വരൾച്ച അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മുടെ പ്രദേശത്തെ മിക്കവാറും കൃഷിയെ ബാധിക്കാറുണ്ടത് വെള്ളപ്പൊക്കം വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് നെൽ കൃഷികള് അങ്ങനെയുള്ള ചെറുകിട കൃഷികളും അധിക ചുഴലിക്കാറ്റ് അങ്ങനെയുള്ളത് വന്ന് കഴിയുമ്പം വാഴ അങ്ങനെ കരിമ്പ് അങ്ങനുള്ള കർഷ കൃഷി ചെയ്തിരിക്കുന്നതെല്ലാം നശിച്ച് പോകുന്നതായി കാണുന്നുണ്ട് പിന്നെ തണുപ്പ് മഞ്ഞ് വീഴ്ചകള് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് എല്ലാം തന്നെ ചീഞ്ഞ് പോകുന്നൊരവസ്ഥയും വരാറുണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് സമയങ്ങള് ഒള്ളത് കൊണ്ട് കർഷകര് കഴിവതും കൃഷി ചെയ്യുമ്പോൾ അതിനും ഒരു മുന്നോടിയായിട്ടുള്ള എന്തെങ്കിലും പ്ര ഒരു സൗകര്യം അതിന് ചെയ്ത് വെയ്ക്കാറുണ്ട് അതായത് ഇപ്പം ഏത്തവാഴകളൊക്കെ വാഴ തൈയ്യൊക്കെ വെക്കുമ്പോൾ അതിന് താങ്ങും കൊടുത്ത് പോവുക പിന്നെ വെള്ളപൊക്കം അങ്ങനെയുള്ള കാര്യങ്ങള് വരുമ്പം ബണ്ട് തുറന്നു വിടുക അങ്ങനെയുള്ള കാര്യങ്ങള് ചെയ്യും അത് നെൽ കൃഷിയെയൊക്കെ രക്ഷപ്പെടുത്തും അങ്ങനെ അതിനെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങളവര് മുന്നേറി സ്വീകരിക്കാറുണ്ട് അതിലും കൂടുതലായി വരുമ്പോൾ അവരത് കഷ്ടപ്പെടാറും ഉണ്ട് പിന്നെ ഗവണ്മെൻറ്റ് അവരെ കുറെയൊക്കെ സഹായിക്കും നഷ്ടങ്ങള് സംഭവിച്ചിരിക്കുന്നവർക്ക് സാമ്പത്തിക സഹായങ്ങള് ഗവണ്മെൻറ്റ് നൽകാറുണ്ട്